പേഴ്സണലി പറയുകയാണെങ്കില് ഈ പൂക്കളും അല്ലെങ്കിൽ പുഷ്പ്പങ്ങളും അതേപോലെ പച്ചക്കറികളും മരങ്ങളൊക്കെ നട്ടു വളർത്തുന്നതില് എനിക്കൊരു ഭയങ്കര ഹാപ്പിനസ്സ് ഉണ്ട് സൊ ഞാൻ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനാഗ്രഹിക്കുന്ന ഒരാളാണ് ടൈ സമയം കിട്ടുമ്പോഴെല്ലാം ഗാർഡനില് പൂക്കള് നടാനും അല്ലെങ്കിൽ ചെടികൾ നട്ട് വയ്ക്കാനും അവയെ പരിപാലിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരാളാണ് ഞാൻ എൻ്റെ വീട്ടില് അല്ലെങ്കിൽ എനിക്ക് നടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറച്ച് ചെടികളുണ്ട് അതില് ഒന്നാമത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് റോസാണ് റോസാപ്പൂക്കൾ എനിക്ക് നടുന്നത് റോസാച്ചെടികൾ എനിക്ക് നടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെത്തന്നെ ചെമ്പരത്തി പൂവ് നല്ല രീതിയിലുള്ള ബഡ് ചെയ്ത രീതിയിലുള്ള നല്ല നല്ല ചെമ്പരത്തിപ്പൂക്കള് നടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ട്ടവാണ് ചെത്തി പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് അതേപോലെ വാടാ വാടാർമല്ലി ജമന്തി ജമന്തിയൊക്കെ ഞാൻ എൻ്റെ വീട്ടില് ഒരുപാട് ഫാം ചെയ്യാറുണ്ട് അതായത് നട്ടുവളർത്താറുണ്ട് അവയെ പരിപാലിക്കാറുണ്ട് അതൊക്കെ പൂവിട്ട് വരുന്ന സമയത്ത് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിനസ്സ് തരുന്നൊരു കാഴ്ച്ചയായിരിക്കും എനിക്കത് പേർസണലി ഭയങ്കര ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ട്ടപ്പെടുന്നൊരു കാര്യമാണത് അതേപോലെ വള്ളിച്ചെടികള് എന്നുപറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ വീട് എൻ്റെ വീട്ടില് മുന്തിരി മുന്തിരിൻ്റെ തൈയ്യൊക്കെ കൊണ്ടുപോയി നട്ടിട്ടുണ്ട് അതേപോലെ ഫാഷൻ ഫ്രൂട്ട് നട്ടിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് ഫാം ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അതിനെ അതിനെ പരിപാലിക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂക്കളിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്നു പറഞ്ഞാൽ റോസ് തന്നെയാണ് ഒരുപാട് തരത്തിലുള്ള റോസ് ബഡ് ചെയ്തതും ബഡ് നോർമൽ റോസയും നാടൻ റോസയും ഒക്കെ ഒരുപാട് നട്ടു വളർത്തിയിട്ടുണ്ട്